വിദ്യാർത്ഥികൾ അനവധി ഭാഷകൾ പഠിക്കേണ്ടത് സുപ്രധാനമാണ് കാരണം നമ്മുടെ മാതൃ ഭാഷയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺഡ്രീസിൽ ഏറ്റോം കൂടുതൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ് അപ്പം നമുക്ക് കൂടുതൽ അവസരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും മറ്റുള്ളവരുവായിട്ട് ഇടപെടാനുമൊക്കെ സാധിക്കുമ്പം നമുക്ക് അവരുടെ കൾച്ചറുകൾ മനസിലാക്കാനും കൂടുതലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താനും സാധിക്കും അതുകൊണ്ട് മാതൃ മാതൃഭാഷയ്ക്ക് പുറമെ മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ് ഇന്ത്യാ എന്നു പറയുമ്പോഴത്തേനും ഭാഷകൾ പല പല ഭാഷകളാണ് ഓരോ സ്ഥലത്തും സംസാരിക്കുന്നത് അത്പോലന്നെ അവരുടെ സംസ്കാരവും വൈവിധ്യമാർ വൈവിധ്യമാർന്നതാണ് അപ്പം നമ്മൾ ഓരോ ലാംഗ്വേജും ഓരോ ഭാഷകളും പഠിക്കുമ്പം നമുക്ക് ആ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ കൾച്ചറും അവരുടെ കലകളും അവരുടെ അവരിൽ നിന്നു കൂടുതൽ അറിവുകളും സമ്പാദിക്കാനൊക്കെ സഹായിക്കും ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്ന്ന് പറയുമ്പം നമുക്ക് ഇന്റര്നാഷണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാകും കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിദ്യാഭാസപരമായും ജോലിപരമായിട്ടും അവസരം കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ അത്വഴി സഹായകമാകും കൂടു പാശ്ചാത്യ രാജ്യങ്ങളിലെ അവരുടെ സാംസ്കാരിക സാംസ്കാരിക കലകളെ പറ്റിയാണെങ്കിലും അവരുടെ കൂടുതലായിട്ടുള്ള വെസ്റ്റേൺ കൾച്ചറും ഒക്കെ നമുക്ക് ഈയൊരു ലാംഗ്വേജ് മനസിലാക്കുന്നത് വഴി മനസിലാക്കാനായിട്ട് സാധിക്കും അത്പോലെ ഈ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്കൊണ്ട് നമുക്ക് പല രാഷ്ട്രീയമായിട്ടും നമ്മുടെ ജോലിസംബന്ധമായിട്ടും കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നത്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ടൂറിസത്തിൽ നമുക്ക് ട്രാവല് ചെയ്യുമ്പം അത് കുറച്ചൂടെ യൂസർ ഫ്രണ്ട്ലി ആകാനുള്ള സഹായിക്കും മറ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് അത്പോലെ ലാംഗ്വേജ് പഠിക്കുമ്പം ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പൾത്തേന്നും നമ്മുടെ ഇന്റലിജൻസ് ഓൾ ഇന്റലി നമ്മുടെ ബുദ്ധിപരമായ വികാസത്തിനും കൂടുതൽ ഈ ലാംഗ്വേജുകൾ പഠിക്കുന്നതുവഴി അത്വഴി സഹായിക്കും